നമ്മുടെ വിളകൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുമ്പോൾ മദ്ധ്യവർത്തികളെ ചൂഷണം ചെയ്യുകയല്ല ചെയ്യുന്നത് സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മള് കൊടുക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ വിളകൾ ഇപ്പം എന്തെങ്കിലും ഫുഡ് പ്രൊഡക്ടസ് അല്ലെങ്കിൽ പാക്കറ്റിലാണെങ്കിൽ നമ്മള് പ്ലാ പ്യായ്ക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വിലയെ വില കൊടുത്തല്ല നമ്മൾക്ക് അവർക്ക് കൊടുക്കുന്നത് വിലയല്ല നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അപ്പം അവരിൽ അതിലും കുറഞ്ഞ തുകയ്ക്കാണ് നമ്മള് അവർക്ക് കൊടുക്കുന്നത് അവര് ആ വിലയിൽ നമ്മള് ഉൽപ്പന്നത്തിൽ പ്രിൻറ്റ് ചെയ്തിരിക്കുന്ന വില കൊടുത്താണ് മറ്റ് മ ഉപഭോക്താക്കൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അവർക്ക് ലാഭമാണ് നമ്മള് അതിനേക്കാലും കുറച്ചാണ് ആ പ്രിൻറ്റഡ് വിലയേക്കാലും കിയുറച്ചാണ് നമ്മള് സാധനങ്ങൾ കൊടുക്കുന്നത് അത് ഉൽപ്പന്നങ്ങളാണേലും അല്ലെങ്കിൽ വിലകളാണെങ്കിലും നമ്മള് കൊടുക്കുന്ന പൈസയ്ക്ക് അല്ലല്ലൊ അവര് വിൽക്കുന്നത് അപ്പം നമ്മളെക്കാൾ കൂടുതൽ പൈസ ക ശെരിക്കും പറഞ്ഞാല് നമ്മള് കർഷകർക്കാണ് അല്ലെ ഉൽപ്പാദിപ്പിക്കുന്നവർക്കാണ് ക് കൂടുതലും നഷ്ടം വരുന്നത് നമ്മളെക്കാൾ എത്രയോ വില കൂട്ടിയാണ് ഈ നമ്മുടെ മദ്ധ്യവർത്തികൾ അല്ലെങ്കിൽ കടക്കാര് നമ്മള് മറ്റ് ഉപഭോകതാക്കൾക്ക് കൊടുക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പം കർഷകരേക്കാലും കൂടുതൽ അല്ലേൽ ഉൽപ്പാദകരേക്കാൾ കൂടുതൽ ലാഭം കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് മദ്ധ്യവർത്തികൾക്കായ കടക്കാർക്ക് തന്നെയാണ് ഒരു ഒരു കഷ്ടപ്പാടുമില്ലാതെ അവര് ആ ലാഭം അവരുടെ കടയിൽ വെച്ച് വിൽക്കുന്നൂ എന്നല്ലാണ്ട് അതിൻ്റെ കഷ്ടപ്പാടുകൾ മുഴുവൻ നടത്തുന്നത് ഉൽപാദകരാണല്ലൊ അപ്പോൾ അപ്പോൾ അവരെ ചൂഷണം ചെയ്യുകയല്ല ശെരിക്കും ചെയ്യേണ്ടത് അവരെ സഹായിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്